കഴിവുകളെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ ഹെല്പ് ചെയ്യാൻ മറ്റുള്ളവരെ സഹായിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ ഏത് ഏത് സാഹചര്യത്തിലാണെങ്കിലും സഹായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കാരണം ഞാൻ അപ്പോൾ ചിന്തിക്കുന്നത് ഞാനാണ് ആ അവസ്ഥയിൽ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക എനിക്കൊരാളുടെ സഹായം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് അതുകൊണ്ടു തന്നെ മറ്റുള്ളവർക്കൊരു പ്രശ്നം കാണുമ്പോൾ ഞാൻ എൻ്റെ സ്ഥാനത്തു നിന്ന് ചിന്തിച്ചിട്ടാണ് അവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങാറ് എൻ്റെ വാപ്പ എപ്പഴും ചെയ്യുന്നതു കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഏതൊരു കാര്യത്തിലാണെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിലാണെങ്കിൽ പോലും നന്നായി ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് കാര്യങ്ങൾ നന്ന നല്ല രീതിക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് കണ്ടിട്ടാണ് ഞാനും സഹായിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നല്ല തീരുമാനങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കാറ് ഇപ്പോൾ എൻ്റെ കൂട്ടുകാർക്കിടയിലൊരു പ്രശ്നം വന്നാലും അത് പരിഹരിക്കാനും ഞാൻ മുന്നിൽ നിന്ന് ശ്രമിക്കാറുണ്ട് രണ്ട് സൈഡ് രണ്ടു പേരുടെയും രണ്ട് സൈഡുകളിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസിലാക്കി പരിഹരിക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്